അങ്ങനെ വെല്ലുവിളികൾ ഉണ്ടോ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ വെല്ലുവിളികളൊക്കെ കുറവായിയിരിക്കും എന്നാലും റൂട്ട് അവർക്കൊരു വെല്ലുവിളി ആയിരിക്കും പല റൂട്ട് കാണിക്കും ഗൂഗിളിൽ ഒരു റൂട്ടായിരിക്കും അല്ലാതെ നമുക്ക് പോവാൻ വേറെ റൂട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ പ്രതിസന്ധികൾ മാത്രമായിരിക്കും ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് വരുന്നവർ വിനോദ സഞ്ചാരികൾ നേരിട്ടിട്ടുണ്ടാവുക ബാക്കി എല്ലാംകൊണ്ടും വയനാട് ക്ലിയർ ആണ് ഫുഡ്ഡുണ്ട് നല്ല ഫുഡ്ഡുണ്ട് ഗതാഗത സൗകര്യങ്ങളുണ്ട് താമസമുണ്ട് ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ ഒത്തിരിയുള്ള ഒരു സ്ഥലമാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അതിൻ്റെ ഒക്കെ കുറേ അങ്ങനെ കറേയുണ്ട് അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എന്നാലും റൂട്ടിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരിക്കും